ഞാൻ മണ്ണിൻ്റെ കുടുക്കയിലാണ് ചോറ് വയ്ക്കുന്നത് ചോറ് വയ്ക്കുന്നതും കറി ഉണ്ടാക്കുന്നതും മൺകുടുക്കയിലാണ് എന്തുകൊണ്ട് വിചാരിച്ചാൽ അലൂമിനി പാത്രങ്ങൾ നല്ലതല്ല എന്ന് പറയുന്നുണ്ട് പഷേ ഞാൻ അലൂമനിപ്പാത്രത്തിലാണ് വെള്ളം തിളപ്പിച്ച് വയ്ക്കുന്നത് അത് മൺകുടുക്കയിലേക്കോ അല്ലേ സ്റ്റീൽ പാത്രത്തിലോ ഒഴിച്ച് വയ്ക്കും എന്നിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ മൺചട്ടിയിലാണ് കറിയുണ്ടാക്കുന്നത് അതിന് കത്തി ഉണ്ട് നാളികേരം ചിരവാൻ ചിരവ ഉണ്ട് പിന്നെ കയിലുണ്ട് കറിയെടുക്കാൻ കയിലുണ്ട് ഇളക്കാൻ കയിലുണ്ട് പിന്നെ അതേപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഞാൻ വറവിടുന്നതും പൊരിയ്ക്കാൻ എടുക്കലും എല്ലാ ഇതും ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് അത് കാൽസ്യം കിട്ടും എന്ന് പറഞ്ഞു ഇരുമ്പിൻ്റെ ചട്ടിയിൽ അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ എളുപ്പ മാർഗം നോക്കും കുക്കറ് കുക്കറിൽ എവിടെക്കേലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കുക്കറ് ഉപയോഗിക്കും അല്ലെങ്കിൽ ഒക്കെ മൺചട്ടിയിൽ തന്നെ ആണ് വിറക് ഉപയോഗിക്കലുണ്ട് അതേമാതിരി ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട് പിന്നേ എല്ലാ സാധാനങ്ങളും ഉണ്ട് പിന്നേ ചിരവ കഞ്ഞി കുടിക്കാൻ കിണ്ണം ചോറുണ്ണാൻ പ്ലെയ്റ്റ് ഇതൊക്കെ ഉണ്ട്